വിദ്യാർഥികള് എല്ലാ ഭാഷകളും ഒരുവിധം അറിഞ്ഞിരിക്കണം മെയിനായിട്ട് മലയാളവും ഹിന്ദി ഇംഗ്ലീഷ് കാരണം നമ്മളെ നാട്ടില് പിന്നെ ഹിന്ദിയേ ഉള്ളൂ മാതൃഭാഷ അപ്പോള് അല്ല ദേശീയ ഭാഷ അതും പിന്നെ നമ്മളെ മാതൃഭാഷയായ മലയാളം എന്തായാലും അറിഞ്ഞിരിക്കണം പിന്നെ ഇംഗ്ലീഷ് യൂണിവേഴ്സലായിട്ടെല്ലായിടത്തും നമ്മള് വിദേശത്തു പോവുകയാണെങ്കില് ഇനി ഇപ്പോള് ഇവിടെ തന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ വർക്കെയാണെങ്കിലും ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമാണ് പിന്നെ എന്നുവച്ചാല് തമിഴ് കുറേ നമ്മളെ ഭാഷേനോടു ചേർന്നിരിക്കുന്ന ഒരു ഭാഷയായതു കാരണം അതും പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല നമ്മളെ ആ എന്താണ് സഹോദര മായിട്ടുള്ള സംസ്ഥാനക്കാരോടു സംസാരിക്കുകയാണെങ്കില് കുറച്ചൊക്കെ അവരുടെ ഒരു ഇതിലുള്ള വിജ്ഞാനം നല്ലതാണ് ചില കുട്ടികള് ഇങ്ങനെ മലയാള മീഡിയം അങ്ങനെ പോയിട്ട് പിന്നെ ഇംഗ്ലീഷ് പോലും തീരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇംഗ്ലീഷിനോട് താല്പര്യം ഉണ്ടാവില്ല പക്ഷെ അതൊക്കെ നമ്മള് നിര്ബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ എഴുതാനും ഒക്കെ ഒരു ബേസിക്കില്ലാത്തവര് വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പോള് നല്ലവണ്ണം ബുദ്ധിമുട്ടും കാരണം പിന്നെ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഫുൾ ഇംഗ്ലീഷ് മീഡിയമാവും അപ്പോള് അവരാകെ ബുദ്ധിമുട്ടും പിന്നെ അതിന്റെയൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കൂളുകള് നിർബന്ധാക്കണ്ടതാണ് എന്നാലേ ഉള്ളൂ കുട്ടികൾക്കു സംസാരിക്കാനും ഒക്കെയുള്ളൊരു ഇതുണ്ടാവുകയുള്ളൂ മറ്റേത് കുറേ എഴുതിവായിച്ചു എന്നു വച്ചിട്ടവര്ക്കു സംസാരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല സംസാരിക്കേണ്ട അവസ്ഥകള്വരുമ്പോള് ആകെ ബുദ്ധിമുട്ടും ഇപ്പോള് ഏത് ഇംഗ്ലീഷ് മീഡിയത്തിലും സംസാരിച്ചിട്ടുള്ള ഒരു അറിവും കൂടി വേണം പിന്നെ വീട്ടിലാണെങ്കിലും ആ നമ്മള് നല്ല ഭാഷ സംസാരിച്ചിട്ടും ഒക്കെ കുട്ടികളെ ശീലിപ്പിക്കണം ഒരുമാതിരി നമ്മല് ബാഡ് വേർഡ്സുമൊക്കെ യൂസെയ്താല് അതു കുട്ടികള് സമൂഹത്തിലിറങ്ങി അങ്ങനെ ഒരു പ്രവണത കുട്ടികളിൽ കാണാൻ സാധ്യതുണ്ട് പിന്നെ എന്താണ് പിന്നെ പല കുട്ടികൾക്കും പഠിക്കാനുള്ള കഴിവു പലതായിരിക്കും ചില കുട്ടികൾക്കു പഠിയുന്നതു വേറെ കുട്ടികൾക്കു പഠിഞ്ഞോളണമെന്നില്ല ഏതായാലും അവനവൻ്റെ കഴിവിൻ്റെ പരമാവധി ഭാഷകളും കൂടി നമ്മള് പരിഗണിക്കണം മറ്റു സോഷ്യൽ സയൻസ് മറ്റേതു പഠിക്കുന്നതുപോലെയല്ല